ഞാനിപ്പോൾ ചിത്രം വരക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഒരു ഞാനൊരു എയ്ത്തിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്കിങ്ങനെ വരക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ വരച്ച് തുടങ്ങിയതും വരക്കുന്നതില് ഏറ്റവും ബുദ്ധിമുട്ട് എന്താന്ന് വച്ചാൽ ഞാൻ ആ വശങ്ങള് എല്ലാ വശങ്ങളും പഠിച്ച് കഴിഞ്ഞപ്പം എനിക്കാദ്യം വരക്കുമ്പോൾ എനിക്ക് എന്നും അറിയില്ലായിരുന്നു അതിപ്പം ഞാന് എല്ലാം എനിക്ക് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പിന്നെ വരയ്ക്കാൻ പഠിക്കാനൊക്കെ പോയിരുന്നു അങ്ങനെ വരച്ച് പഠിച്ചപ്പം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഒര് ഒരാളെ വരക്കാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരക്കുന്നേല് തന്നെ ഒരു മനുഷ്യനെ വരാക്കാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട് വരണം എന്നില്ല ഒരു മനുഷ്യൻ്റെ കണ്ണ് വരക്കണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വരക്കാനാണ് അപ്പോൾ മുടി അവരുടെ ഇതിനനുസരിച്ച് നമ്മളിപ്പോൾ ഏത് ചിത്രാണ് വരക്കുന്നത് അതിലോ അതുപോലെ പെർഫെക്റ്റ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ മൂക്കും ചുണ്ടും ഏതിനേലും ഒരെണ്ണത്തിന് കുറച്ച് വലിപ്പം കുറയുകയോ കൂടുവോ എന്ത് ചെയ്താലും അപ്പ അതില് ഭയങ്കര മിസ്റ്റേക്ക്സ് വരാ വരും ഇപ്പോൾ നമ്മടെ മുഖത്ത് തന്നെ നമ്മുടെ എന്തേലും ഇപ്പ നമുക്ക് മുഖത്ത് എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാകും അതുപോലെ തന്നെയാണ് നമ്മള് വരയ്ക്കുമ്പോഴും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നല്ല മാറ്റവും വരും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടൊണ്ട് അപ്പം ഇങ്ങനെ അത് ഒരുപാട് പ്രശ്ങ്ങള് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വരക്കുന്നതില് ഒരു മനുഷ്യനെ വരക്കുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതല് പാടുള്ളത്